ഇപ്പം ഈ ചിത്ര രചന അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടില്ല ഈ രോഗ മുക്തിയൊക്കെ നൽകാൻ പറ്റിയൊരു ഇതാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല കാരണം നമുക്കിപ്പോൾ ചിത്രരചനയിലൂടെ എന്തൊക്കെ സാധിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചു സന്തോഷം നൽകാനൊക്കെ നമുക്കിതു കൊണ്ട് കഴിയും കാരണം നമുക്കു വേണ്ട ആൾക്കാരുടെ ഫോട്ടോസ്സൊക്കെ വരച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കത്യാവശ്യം നല്ല രീതിയിൽ അവരെ ഇതാക്കാൻ കഴിയും സന്തോഷിപ്പിക്കാൻ കഴിയും അല്ലാതെ അത് രോഗവിമുക്തിയെന്നൊക്കെ പറഞ്ഞാൽ സന്തോഷിക്കുന്നതിലൂടെ കുറേ ആൾക്കാർക്ക് രോഗമൊക്കെ മാറും അത്യാവശ്യം നല്ല രീതിയിൽ സന്തോഷമൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ രോഗമൊക്കെ മാറുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്നാലും എനിക്ക് അതിനെ രോഗമുക്തിയൊക്കെ ലഭിക്കുമെന്നുള്ള രീതിയിലൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല എന്താ പറയുക അങ്ങനെ ഓവറായിട്ട് നമുക്കതിനെ പറ്റി അങ്ങനെ പറയാനൊന്നും പറ്റില്ല കാരണം ആൾക്കാർക്കിപ്പോൾ എന്താ പറയുക ഓരോരുത്തർക്ക് ഓരോ മെൻറ്റാലിറ്റിയാണ് ഇപ്പോൾ ചിത്രം വരയ്ക്കുന്നതും ചിത്രരചന കാണുന്നതിലൂടെയൊന്നും ആൾക്കാർക്ക് രോഗം മാറിക്കോണമെന്നൊന്നും ഇതുവരെയില്ല പിന്നെ നോർമ്മലി നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ എന്താ പറയുക അങ്ങനെ ചിത്രരചനയിലൂടെയൊന്നും ആൾക്കാർക്ക് രോഗശാന്തി വന്ന് അതായത് രോഗത്തിൽനിന്ന് ഇങ്ങനെ മുക്തി നേടിയതായിട്ടൊന്നും എനിക്ക് ഇതുവരെ അറിവൊന്നും ലഭിച്ചിട്ടില്ല